മലയാള ഭാഷ എന്നത് നമ്മുടെ മാതൃ ഭാഷയാണ് അതുപോലെതന്നെ കേരളത്തിൽ ഉള്ളവർക്ക് മാത്രം മലയാളഭാഷ കൂടുതലായിട്ട് അറിയുള്ളൂ അത് എഴുതാൻ ആണെങ്കിലും വായിക്കാൻ ആണ് എങ്കിലും മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാൻ ആണെങ്കിലും ഈ കേരളത്തിൽ ഉള്ളവർക്കും മാത്രം അറിയുള്ളൂ പക്ഷേ എല്ലാ ജില്ലകളിലും ലാംഗ്വേജ് മലയാളം തന്നെയാണ് പക്ഷേ സ്ലാങ്ങുകള് മാത്രം മാറും ഹിന്ദി എന്ന് പറയുവാണേൽ ഓവറോൾ നമ്മളുടെ ഇന്ത്യയിൽ മൊത്തം അറിയുന്ന ഒരു ഭാഷയാണ് ഹിന്ദി എന്ന് പറയുന്നത് ഹിന്ദി പുറത്തുപോയി ആരോട് ചോദിച്ചാലും ഹിന്ദി എല്ലാവർക്കും ഹിന്ദിയിലാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് പറ്റും അതുപോലെതന്നെ എഴുതാനാണെങ്കിലും എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിപ്പോൾ ഈ കേരളത്തിലെ ഒരു മലയാള ഭാഷ പോയി നമ്മള് പുറത്തുപോയി പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകാനോ അല്ലെങ്കിൽ അവർക്കത് എഴുതാനൊന്നും അറിയാത്തതാണ് ഓവറോൾ മൊത്തത്തിൽ മനസ്സിലാവുന്ന ഒരു ഭാഷ എന്ന് പറയണത് ഹിന്ദി തന്നെയാണ് പക്ഷേ കേരളത്തിലുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഭാഷ തന്നെയാണ് മലയാളം എന്ന് പറയുന്നത്